ഹലോ എന്ത് സാധനമായിരുന്നു മേഡം

പ്രീ ഓപ്പൺഡ് ആയിരുന്നോ അപ്പം നമ്മുടെ കയ്യിൽ നിന്നായിരിക്കില്ല അതിൻ്റെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പൊട്ടിച്ചതായിരുന്നോ അത് ആ ഡാമേജും പറ്റിയിട്ടുണ്ട് അത് ഓപ്പണുമായിരുന്നുവെങ്കില് അതൊരിക്കലും ഞങ്ങളുടെ കയ്യില് നിന്നായിരിക്കുകയില്ല കാരണം ഡെലിവറി ബോയ് കൊണ്ടുവന്നു തന്നപ്പോള് അത് ഓപ്പൺ ആയിരുന്നുവോ അതെന്തുകൊണ്ട് അന്നേരം തന്നെ അവനോട് അത് സൂചിപ്പിച്ചില്ല ഇത് ഓപ്പൺ ആയിരുന്നുവെന്ന് ആ സമയത്തുതന്നെ സൂചിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെയൊരു ഇത് കിട്ടൂ അതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഡെലിവറി ബോയ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നുകഴിയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് ശ്രദ്ധിക്കാതിരുന്നു ങാ ഓക്കെ യൊക്കെ ആ അതിനെന്ത് ഡാമേജ് ആയിരുന്നു ഇപ്പോള് സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം ഞാൻ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കംപ്ലയിന്റുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും കാലം ഇങ്ങനെയൊരു സംഭവം ഇവിടെയുണ്ടായിട്ടില്ല ഏത് ഡെലിവറി ബോയിയുടെ പേരെന്തെങ്കിലും ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയായിരുന്നോ അതിൻ്റെ കൃത്യമായ ഡേറ്റ് സമയം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ പത്ത് രണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോള് എന്താണ് ഇത്രയും നാളും നിങ്ങൾ താമസിച്ചതിൻ്റെ കാരണമെന്താണ് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് അപ്പോള് അതിൻ്റെയകത്തു തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് പ്രീ ഓപ്പൺഡ് ആയിരുന്ന ഒരു സാധനം ഇത്രനാൾ ഇന്ന് പതിനൊന്ന് മൂന്നാണ് മിസ്റ്റർ ആ നിങ്ങൾ ശരിക്കുമാണോ സംസാരിക്കുന്നത് അത് പ്രീ ഓപ്പൺഡ് തന്നെയായിരുന്നോ അതോ ഞങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങള് പറയുന്നതാണോ ഹലോ ഞങ്ങളെ എന്താണ്

ങാ ഇത് ഇന്നിപ്പോള് പത്ത് മൂന്ന് രണ്ടായിരത്തിയിരുപത്തിയഞ്ചല്ലെ അപ്പോള് നിങ്ങള് പറഞ്ഞതിൻ്റെ തെറ്റാണോ അതോ ഞങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളങ്ങനെ പറയുന്നതാണോയെന്നാണ് ഞങ്ങള് ചോദിക്കുന്നത് നിങ്ങള് പൈസ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നുവോ മ്മ് എന്നിട്ടുമിത് സംഭവിച്ചുവല്ലേ സ്ക്രീൻ പൊട്ടിയിരുന്നു സ്ക്രീൻ ഗാർഡ് ഉണ്ടായിരുന്നുവോ മ്മ് മ്മ് മ് ങാ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ നിങ്ങളുടെ സ്ഥലം ഏതായിരുന്നു ഹലോ നിങ്ങളുടെ സ്ഥലം ഏതായിരുന്നു കട്ടപ്പന കട്ടപ്പനയില് പ്രോപ്പർ കട്ടപ്പന തന്നെ ങാ ഓക്കേ കേട്ടോ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം